കാലങ്ങളായി ഞങ്ങളുടെ യോഗ വികസിച്ചു എന്നു വച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തു വരുന്ന ആൾക്കാരും എല്ലാം നല്ലൊരു രീതിയിലുള്ള സഹകരണമാണ് ചെയ്യുന്നത് കാരണം നമ്മൾ പറയുന്നത് കേൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് യോഗയെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പം ആൾക്കാർക്ക് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും അവർക്കു നല്ല ഒരു ഫ്രീ റീലീഫാണ് നൽകിയേക്കുന്നത് അപ്പം ആരാഗ്യപരമായിട്ടു പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം തടിയുള്ളവരാണെങ്കിൽ യോഗയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തടി കുറയ്ക്കാനും അവർക്ക് നല്ല രീതിയിൽ നമ്മുടെ അവരുടെ മസ്സിൽസും അവരുടെ പെയിൻ എന്തെങ്കിലും നടുവേദന മുട്ടുവേദന കാലുവേദന തൈറോയിഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറയുകയാണ് ഉണ്ടാകുന്നത് അപ്പം ആവശ്യം അത്യാവശ്യത്തിനു ആൾക്കാർ എല്ലാവരും യോഗേലേക്കാണ് ഇപ്പം ഇറങ്ങുന്നത് ഈ ജിമ്മിൽ പോകുന്നതിനെക്കാളും കുറച്ചുംകൂടി നല്ലത് യോഗയിലേക്കു വരുന്നതാണ് കാരണം ജിമ്മിൽ നമ്മൾ വെയ്റ്റെടുക്കുന്നതിനനുസരിച്ച് നമ്മളിപ്പം വെയ്റ്റ് അപ്പോൾ നമ്മളിപ്പം ജിം നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തടി കൂടും നമ്മുടെ ശരീരം തൂങ്ങിപ്പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പം അതിലും നല്ലത് നമ്മൾ യോഗയിലാണെങ്കിൽ യോഗയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല ഇപ്പം എല്ലാവരും യോഗ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം യോഗ എന്നു പറഞ്ഞ സംഭവം ഇപ്പം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും യോഗയിലേക്കാണ് കയറുന്നത് അപ്പോൾ യോഗയെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ പറയുക എല്ലാവർക്കും ഒരു ഫ്രീ റീലീഫാണ് കൊടുക്കുന്നത്